നമ്മൾക്ക് സാങ്കേതിക വിദ്യ എങ്ങനെയാണ് ബാങ്കിങ് സേവനം എളുപ്പമായിരിക്കുന്നതു വെച്ചാൽ നമുക്ക് ബാങ്കിൽ പോകാതെ തന്നെ പൈസ അടയ്ക്കാനും പൈസ എടുക്കാനും ഉള്ള സൗകര്യം ഇപ്പോളുണ്ട് അതു ഗൂഗിൾ പേ വഴിയും ഫോൺ പേ വഴിയും ഒക്കെ നമുക്ക് ചെയ്യാം നമുക്ക് എന്താ പാസ് ബുക്ക് പതിപ്പിക്കാനായിട്ടോ അല്ലേ നമ്മുടെ ബാലൻസ് അറിയാനോ ഒന്നും നമുക്ക് ബാങ്കിൽ പോകേണ്ട കാര്യമില്ല നമുക്കൊരു സാധനം മേടിക്കണേ തന്നെ നമുക്ക് ഓൺലൈൻ വഴി ഗൂഗിൾ പേ ചെയ്താണെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ കടേ പോകേണ്ട കാര്യവും ഇല്ല അതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എളുപ്പമാക്കിത്തന്നിട്ടുണ്ട് അത് അതുപോലെ ക്യാഷ് കൊണ്ടു നടക്കാതെ നമുക്കൊരു സാധനം മേടിക്കണമെന്നുണ്ടേൽ കള്ളന്മാരെ പേടിക്കണ്ട ഒന്നും വേണ്ട അല്ല മറ്റേ നമ്മൾ പേഴ്സിൽ കാശു കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സും കാര്യങ്ങളും ഒക്കെ ഒത്തിരി ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ കള്ളന്മാരുടെ ഇടപെടലും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒത്തിരി കുറ്റകൃത്യങ്ങൾ നടക്കുന്നൊരു സമയമാണ് ഇപ്പോൾ അത് അതൊന്നും പേടിക്കാതെ നമുക്ക് നമ്മുടെ പൈസ സൂക്ഷിക്കാൻ പറ്റും ഓൺലൈൻ വഴി സാ ഒരുപാട് സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതു നമുക്ക് കടയിൽ പോകാതെ ഇവിടെ നമ്മുടെ വീടുകളിൽ കൊണ്ടാ സാധനം എത്തിക്കും പൈസ അടക്കാനും ആ പൈസ അടക്കാനാണെങ്കിലും നമ്മൾ എ ടി എമ്മിൽ പോയി സി ഡി എം വഴി നമുക്ക് പൈസ വേണേ ഡെപ്പോസിറ്റ് ചെയ്യാം അല്ലെന്ന് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ തന്നെ ഇത് എ ടി എം കാർഡ് വഴി നമുക്ക് പൈസ വിത് ഡ്രോ ചെയ്യാം ആർക്കെങ്കിലും നമ്മുടെ ഒരു സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരാവശ്യം വന്നൂ അല്ലെ ഒന്ന് പൈസ വേണമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഗൂഗിൾ പേ ചെയ്തു കൊടുക്കാൻ പറ്റും അതുകൊണ്ട് പൈസ എടുക്കാനായിട്ടു ബാങ്കിൽപ്പോയി ക്യു നിൽക്കേണ്ട മാനേജരെ കാണേണ്ടാ ഒരു ഇതും വേണ്ടാ ആരുടെയും കൂടെ പോയി ഒന്നിനും പേടിക്കുകയും വേണ്ട നമുക്ക് സ്വന്തമായിട്ടു തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് പാ പിന്നെ ബാങ്കിൽ പോയി പോയി ഒരു ഇത് കാര്യത്തിന് എന്തെങ്കിലും പോയാൽ നമുക്ക് അറിയാമല്ലേ എത്രമാത്രം താമസമാണ് ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ സമയം മുഴുവൻ പോയി പോകും അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ലാതെ തന്നെ നമുക്ക് ഓ ഫോണിൽ കൂടെത്തന്നെ സം സാങ്കേതിക വിദ്യയുപയോഗിച്ചു തന്നെ നമുക്ക് പൈസയെടുക്കാനോ പൈസയിടാനോ ഒക്കെ പറ്റും അതുകൊണ്ട് സാധനങ്ങൾ മേടിക്കാനും പിടി ഒന്നിനും നമ്മൾക്കൊരു ബുദ്ധിമുട്ട് ഇല്ല നമ്മൾ കടയിൽ പോയി ക്യു നിൽക്കേണ്ട ഒന്നും വേണ്ട ഏ സാധനം നമ്മൾ ഫോൺ വഴി തന്നെ ഓൺലൈനിൽ പർച്ചെയ്സ് ചെയ്യുക അതുപോലെതന്നെ പൈസ അടക്കാനാണെങ്കിലും എളുപ്പം ആണ് അതു നമ്മുടെ വീടുകളിൽ കൊണ്ട് അവർ സാ ഇത് എത്തിച്ചുതരും അത് ചിലപ്പോൾ പൈസ ഇടും ഇടുമ്പോഴത്തേക്കും ചിലപ്പോൾ എന്തു വന്നാൽപ്പോലും അന്വേഷിക്കാൻ നമ്മുക്കൊരു ആ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് എന്നാലും അതെല്ലാം നമ്മുടെ ഫോണിൽ കൂടി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റു ചെയ്യാൻപറ്റും ലക്ഷങ്ങളാണേൽ പോലും സി ഡി എം വഴി നമുക്ക് ആർക്കു വേണമെങ്കിലും അയക്കോ ഒക്കെ ചെയ്യാം സെ അങ് അതുകൊണ്ട് എ ടി എം വഴിയാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്യാഷെടുക്കാം ബാങ്കിൽ പോകാതെതന്നെ നമ്മുടെ യാത്രയിൽ ഇപ്പോൾ വയ്യാത്ത ഒരാളാണേ പോലും നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ആരെങ്കിലും ഇതു വെച്ചിട്ട് ഫോ ഫോണിൽ കൂടെയുള്ള ഗൂഗിൾ പേയുടെ ഇതൊക്കെ ഒന്നു പഠിച്ചാൽ മതി അതു കൊണ്ടു വയ്യാത്ത ആൾക്കാർക്കു പോലും പൈസ എങ്ങോട്ടായാലും ഏതു ചെയ്യാനായാലും എന്തെങ്കിലും ഒരു സാധനം മേടിക്കണേ പോലും നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാവുന്നതാണ് പൈസ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അക്കൗണ്ടിൽ പൈസ കൈയിൽ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല പൈസയെല്ലാം നമ്മുടെ സ് പൈസയും കാര്യങ്ങളും എല്ലാം സെയ്ഫായിട്ട് എന്താ നമ്മുടെ അക്കൗണ്ടിൽത്തന്നെ കിടക്കുകയും ചെയ്യും ആരും ഒരു കള്ളൻ കൊണ്ടുപോകോ എന്നൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യവും ഇല്ല മക്ക് ഏത് ഇതുപോലെ എല്ലാ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും